എൻ്റെയൊക്കെ ആദ്യം പ്രിയപ്പെട്ട പാചകവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറകിൻ്റെ അടുപ്പിൽ കുക്ക് ചെയ്ത് എടുക്കുന്നതാണ് വിറകിൻ്റെ അടുപ്പിൽ നിന്ന് ചോറാകട്ടെ കറികളാകട്ടെ മറ്റുള്ള സാധനങ്ങളാകട്ടെ എന്ത് കുക്ക് ചെയ്താലും നാച്ചുറലായിട്ടുള്ള പ്രോസസ്സ് തന്നെ ആയതുകൊണ്ട് വളരെ അധികം ടേസ്റ്റ് കിട്ടുന്നു അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടാൻ രുചിക്കാൻ പറ്റുന്നു അപ്പോഴ് പിന്നെ അടുപ്പിൽ വെച്ച് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ ടെസ്റ്റോടെയും നമുക്ക് അത് എന്ത് സാധനം ആണെങ്കിലും അത് കഴിക്കാൻ പറ്റുന്നു അതുകൊണ്ട് എനിക്ക് വിറകിൻ്റെ അടുപ്പിൽ വെച്ച് അതാണെൻ്റെ പാചകവിധി